ഹലോ ഡോക്ടറല്ലേ എനിക്ക് വയറുവേദനാന്ന് വിളിക്കുന്നത് കാസർഗോഡുനിന്ന് പാക്കത്തുനിന്ന് വിളിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പാക്കത്ത്നിന്ന് ആ പേര് രതി ഒരു രണ്ട് മൂന്ന് ദിവസമായി ഇല്ല ഇത് ആദ്യം ആയിട്ട്

വേറെ ഒന്നും പ്രശ്നം ഇല്ല ഇന്നലെ മുരിങ്ങാച്ചപ്പ് ഇല കറി കൂട്ടീന് അതിൽ പിന്നെ വയറുവേദന പുറത്ത് പോക്ക് ഒന്നും ഇല്ല ഒരു കരണ്ട് കരണ്ട് വയറുവേദന ആ ആ ഇന്നലത്ത പോലെ ഇന്നലെ രാത്രി തുടങ്ങിയത്

വേറെ വയറുവേദന ഇത് അല്ലാതെ ഇതിന് മുന്തി ഉണ്ടായി രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയത് ആ ഇത് മുരിങ്ങാച്ചപ്പ് ഇല കൂട്ടിയതിൽ പിന്നെ കരണ്ട് കരണ്ട് വയറുവേദന ഇന്നലെ തുടങ്ങിയത്

മരുന്ന് ആയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല

ആ ഇതിന് മുന്തി ഇത് ഇന്നലെ മുരിങ്ങാച്ചപ്പില കഴിച്ചതിൽപ്പിന്നെ കരണ്ട് കരണ്ട് വയറുവേദന വന്നത് അതിന് മുന്തി രണ്ട് ദിവസം മുന്തി മൂന്ന് ദിവസം ആയി തുടങ്ങീട്ട് അത് വേറെ മറ്റേ വയറുവേദന

ആ ശരി ഇത് എന്തെങ്കിലും അതിൻ്റെ വിഷാംശം ഉണ്ടായിട്ട് ഉണ്ടാവും മുരിങ്ങാച്ചപ്പിലയിൽ

ആ ആ ആ ശരി ഓക്കെ